നമ്മുടെ സംസ്ഥാനം കേരളമായതുകൊണ്ട് തന്നെ പ്രധാന ഭാഷ മലയാളമാണ് കുട്ടികൾ എല്ലാവരും ആദ്യ അക്ഷരങ്ങൾ പഠിക്കണത് മലയാളത്തിലാണ് പിന്നീടങ്ങോട്ടാണ് വാക്കുകളും കൂടുതൽ വാക്ക്യങ്ങളൊക്കെ പഠിക്കണത് തീർച്ചയായും വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മലയാള ഭാഷയ്ക്ക് വലിയൊരു പങ്ക് തന്നെയാണ് ഉള്ളത് നമുക്ക് ആശയ വിനിമയം നടത്താനും അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാനും നമുക്ക് മലയാള ഭാഷ ഒരുപാട് നമ്മളെ സഹായിക്കാറുണ്ട് ചെറിയ കുട്ടികൾ ആ ആദ്യമായി സ്കൂളിൽ പോകുന്ന സമയത്ത് മലയാളത്തിൽ അക്ഷരമാല അക്ഷരമാലകൾ പഠിച്ചും പിന്നീട് വാക്കുകളായി വാക്കുകൾ ചേർത്ത് അവർ പഠിക്കുകയും ചെയ്യുന്നു പിന്നെ മലയാളം ഭാഷ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റ് ഏതു ഭാഷയും എളുപ്പമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് അറിയണ പോലെ മലയാള ഭാഷയിൽ ഒരുപാട് ആ അക്ഷരങ്ങളുണ്ട് ഒരുപാട് അക്ഷരങ്ങളുണ്ട് സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരം എന്ന് പറയണ ഒരുപാട് അക്ഷരങ്ങളുണ്ട് തീർച്ചയായും മലയാളം എപ്പോഴും വായിക്കുകയും പഠിക്കുകയാണെങ്കിൽ നമുക്ക് മലയാളത്തിലുള്ള പ്രാവീണ്യം കൂടുകയാണ് ചെയ്യുന്നത് പത്രം വായിക്കുകയും മറ്റ് നോവലും പുസ്തകങ്ങളും വായിക്കുകയാണെങ്കിൽ നമുക്ക് മലയാളത്തിലുള്ള ആ ഒരു പ്രാവീണ്യം കൂടുകയാണ് ചെയ്യണത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തീർച്ചയായും മലയാളം എന്നൊരു ഭാഷയ്ക്ക് പ്രാധാന്യമുണ്ട് കാരണം മലയാളം ഭാഷ പഠിച്ചിരിക്കണം എന്നൊരു നിർബന്ധം വരുന്നുണ്ട് എന്നാൽ എന്നാൽ വരും തലമുറകളിലൊക്കെ കുട്ടികൾക്ക് മലയാള ഭാഷ അറിയാതെ അറിയാതെ പോവുകയാണ് ആ അക്ഷരങ്ങൾ പോലും വ്യക്തമായി അറിയാണ്ടാണ് അവർ പിന്നീടുള്ള മുതിർന്ന ക്ലാസ്സുകളിലോട്ട് അവർ പോകുന്നത് അങ്ങനെ മലയാള ഭാഷയുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ് എന്നാലും മലയാള ഭാഷയ്ക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയൊരു സ്ഥാനം തന്നെയാണുള്ളത്